എൻ്റെ സ്കൂളിൽ ഞാൻ ചിത്ര രചന പഠിച്ചത് എന്നാച്ചാൽ അതിൻറ്റേതായൊരു സമയം തന്നിരുന്നു ആ സമയത്ത് നമ്മൾ എന്ത് കലെയ ചെയ്യെണ്ടത്ച്ചാൽ അത് പഠിക്കാനൊരു സമയം സ്കൂൾ തന്നിരുന്നു ആ സമയത്ത് ഞാൻ കുറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പഠിച്ചിട്ടുവുണ്ട് എങ്ങനെ ചിത്രങ്ങൾ വരക്കണ്ടേന്ന് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എൻ്റെ മാഷന്മാരും ടീച്ചർമാരുവൊക്കെ അപ്പോൾ ഓരോ സമയത്ത് എങ്ങനെ ചെയ്യണ്ടേന്ന് അവർ പറഞ്ഞെരും അതെപോലെ കണ്ടിട്ടാണ് ഞാൻ ചിത്രരചന തുടങ്ങിയത് അപ്പം എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് അവർ പറഞ്ഞെരും എങ്ങനെയാണ് വരക്കേണ്ടതെന്നും എങ്ങനെ ചെയ്യണമെന്നും അവർ പറഞ്ഞെരും അപ്പം അതെപോലെ ഞാൻ കണ്ട് ചെയ്തു അന്നൊക്കെ ടീച്ചർമാർ പറയണ പോലെ ഞാൻ ചെയ്തോണ്ടാണ് എനിക്ക് ചിത്ര രചന ഇഷ്ട്ടമായത്